റേഡിയോ ഞാനിപ്പോൾ അധികം അങ്ങനെ കാണാറില്ല കണ്ടിരുന്ന സമയത്ത് വൺ നോട്ട് ഫോർ പോയിൻ്റ് എയ്റ്റിലത്തെ ലൗ ബൈറ്റ്സ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനകത്ത് ഭയങ്കര രസമുള്ള രീതിയിലാണ് അത്ൻ്റെ അവതാരക അത് പരിപാടി നടത്തിയിരുന്നത് പിന്നെ അതിനകത്ത് വരുന്ന പാട്ടുകളും നല്ല രസമായിരുന്നു അത് പൊതുവേ രാത്രി പത്ത് മണിക്ക് ശേഷമായിട്ടാണ് എൻറെ ഓർമ്മ പിന്നെ ഇത് മംഗോ അതൊക്കെ നല്ല ചാനൽസ് ആണ് പക്ഷേ ഇപ്പോൾ പൊതുവേ എല്ലാവരും എഫ് എമിൽ നിന്നൊക്കെ മാറി ടി വിയിലേക്കൊക്കെ ആയി റേഡിയോ ഇപ്പോൾ കാണൽ വളരെയധികം ഇപ്പോൾ കുറവായി ഇപ്പോൾ എല്ലാവരും ടി വി പരിപാടികളിലേക്ക് ടി വിയിലും ഞാൻ ഇപ്പോൾ പൊതുവേ കാണാറുള്ളത് ബിഗ് ബോസ് ആണ് അത് വർഷത്തിൽ ഒരിക്കലാണ് ഒരു സീസൺ ഉണ്ടാവാറ് ആ സീസൺ വളരെയധികം ഇൻട്രസ്റ്റിങ്ങ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം വെച്ചാൽ അതിനകത്ത് അവതാരകൻ മോഹൻലാലാണ് അതിനകത്ത് എന്താണ് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് അവരുടെ അഭിപ്രായം പറയലും പിന്നെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസും അതൊക്കെ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒരു വിന്നറിനെ തീരുമാനിക്കുന്നതാണീ ഒരു ഗെയിം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് തോ പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട ടി വി പരിപാടികൾ ഉണ്ട് കൊച്ചു ടി വിയിലത്തെ ഡോറ ബുജി അതൊക്കെ എല്ലാവരുടേയും മനസ്സിൽ ആ ഒരു കുട്ടിത്തം എന്തായാലും ഉണ്ടാവും അതിനകത്ത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഡോറ ബുജി പിന്നെ ലിറ്റിൽ കൃഷ്ണ അതൊക്കെ നല്ല പരിപാടി നല്ല

കുട്ടിത്തമുള്ള ഓരോ പരിപാടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പോഗോ എന്ന് പറഞ്ഞ ചാനലിൽ ഛോട്ടാ ഭീം ബെൻ ടെൻ ഡോറിമോൻ അതൊക്കെ എനിക്കിഷ്ടപ്പെട്ട പരിപാടികളാണ്